മോനെ നിങ്ങളുടെ ഭക്ഷണം പറയാൻ വയ്യ അടി പൊളി ആയിരുന്നു നിന്നോട് ഒത്തിരി ഒത്തിരി നന്ദി ഉണ്ട് ഞാൻ എല്ലാവരോടും വിളിച്ച് വിളിച്ച് എവിടെ നിന്നും ഒരു മറുപടിയും കിട്ടാത്തപ്പം നിങ്ങളുടെ വീട്ട് ഭക്ഷണത്തെ പറ്റി ഓർമ്മ വന്നേ ഒത്തിരി താമസിച്ചാണ് നിങ്ങൾക്ക് ഇത്ര അധികം ഭക്ഷണം ഞാൻ ഓർഡറും തന്നത് പക്ഷെ കൃത്യസമയത്തു ഭക്ഷണം കിട്ടുമോ എന്നുപോലും പേടിച്ചിരുന്നു പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞ സമയത്തിന് മുൻപേ ഭക്ഷണം നിങ്ങൾ എനിക്ക് കൊണ്ട് തന്നപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയ് എനിക്ക് അത്ഭുതമായിരുന്നു ഇത്ര വൈകീട്ട് ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ കൃത്യസമയത്തു എങ്ങനെയാണ് ഭക്ഷണം തന്നെയെന്ന് ഇനിയും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നല്ല രസമുണ്ടായിരുന്നു ഓരോ ഭക്ഷണവും കഴിക്കാൻ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് ഇത്രയും ചെറിയ പൈസക് ഇത്രയും ഗുണവും രസവും ഉള്ള ഭക്ഷണം ആർക്കും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല അത്രയും ഗംഭീരമായിരുന്നു എല്ലാവർക്കും അത്രയും ഇഷ്ടമായി ഇനിയും ഇനിയും ഇതുപോലെ തന്നെ മുന്നോട് പോകട്ടെ അത്രക്കും പൊളിയായിരുന്നു ഭക്ഷണം എല്ലാവരും ആസ്വദിച്ചാണ് കഴിച്ചത് എല്ലാവരും ചോയ്കേം ചെയ്തു ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എവിടെ നിന്നാണ് വാങ്ങിയത് എനിക്ക് അത്രയും അഭിമാനത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത് ഒരുപാട് സന്തോഷമായി ഇത്രയും പൈസ കുറച്ചിട്ടൊക്കെ നിങ്ങൾ ഇത്രയും നല്ല ഫുഡ്ഡൊക്കെ കൊടുക്കുമ്പോൾ ആരാണ് വാങ്ങി കഴിക്കാതിരിക്കുക ഒത്തിരി സന്തോഷമായി